ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമുഖ വ്യവസായമാണ് നിലമ്പൂരിലെ തേക്ക് വ്യവസായം തേക്ക് വ്യവസായത്തോട് കൂടി നമ്മൾ പല സഞ്ചാരമേഖലയിൽ തുറന്ന് വച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് നെടുങ്കയം ഫോറസ്റ്റ് ഡിപ്പോ അവിടെ എന്നും വിനോദസഞ്ചാരികൾ വന്നിട്ട് ഫോറെസ്റ്റ് ഉൽപ്പന്നങ്ങളും ഫോറെസ്റ്റ് തടിയുമെല്ലാം വാങ്ങി വാങ്ങുന്നുണ്ട് പക്ഷേ അവരുമായി നമ്മൾ വിനോദസഞ്ചാരി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മോശമായ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല പല രാജ്യത്തെ സഞ്ചാരികളും ഞങ്ങളുടെ നാട്ടിലെ തേക്ക് തോട്ടം കാണാനും ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് തോട്ടം സന്ദർശിക്കാനും ആളുകൾ വരുന്നുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേക്കാണ് നിലമ്പൂരിലെ തേക്ക് തോട്ടത്തിൽ ഉള്ളത് അത് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചിരിക്കുന്നത് കനോലി പ്ലോട്ട് എന്നും ഇതിനെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഒരു എഞ്ചിനീയറാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർ കനോലി ആണ് ഈ മരം നട്ട് പിടിപ്പിച്ചത് ആദ്യമായി മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട തേക്ക് തേക്ക് തോട്ടങ്ങളാണ് നിലമ്പൂരിലെ തോട്ടവും ഇന്നും തലയെടുപ്പോട് കൂടി വളരെ അധികം ഉയരത്തിൽ അത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന തേക്ക് തോട്ടങ്ങൾ ഒരു തേക്കും ഞങ്ങളുടെ നിലമ്പൂരിലെ തേക്ക് തന്നെയാണ് നിലമ്പൂരിലെ തേക്ക് പല രാജ്യങ്ങളിലേക്കും വിനോദസഞ്ചാരികൾ മുഖേന അവരുടെ മര ഉരുപ്പടികളായി എത്തിയിരിക്കുന്നു എന്നാൽ ഇത് ഇതോട് കൂടി തൊഴിലവസരങ്ങളും ഒപ്പം വിനോദസഞ്ചാരവും വളരെ അധികം മെച്ചപ്പെട്ടിരിക്കുന്നു ആർക്കും തന്നെ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളുമായിട്ട് മോശമായ അനുഭവങ്ങളില്ല എല്ലാം നമുക്ക് അവരെല്ലാം നമുക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ട്